എൻ്റെ രണ്ടാമത്തെ പ്രോഡക്റ്റ്ന്നു പറയുമ്പോ ഹെഡ്സെറ്റാണ് അപ്പോൾ ഞാനത് എന്താ പറയുക ഒരു ഫ്രണ്ടിൻ്റടുത്ത് കണ്ടിട്ടാണ് സാധനം വാങ്ങിയത് അപ്പോൾ ഓൾമോസ്റ്റ് കമ്പനി പറയുന്നത് ഇതിനു നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട് നല്ല ചാർജിങ് കപ്പാസിറ്റി ഒക്കെ അത്യാവശ്യം ഒരു എയ്റ്റ് അവേർസൊക്കെ കിട്ടും പിന്നെ ഒരു ടെൻ മീറ്റര് വരെ ബ്ലൂടൂത്തിനു ഡിസ്റ്റൻസ് ഒക്കെ കിട്ടുംന്നൊക്കെയായിരുന്നു കമ്പനില് അവര് റിവ്യൂലൊക്കെ പറഞ്ഞിരുന്നത് അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാനിത് വാങ്ങാൻ വേണ്ടിട്ട് പോയത് തന്നെ ഇത് വാങ്ങിക്കഴിഞ്ഞപ്പഴാണ് ഇതിൻ്റെ ഫാൾട്ടുകള് നമുക്ക് മനസിലായത് അതുപോലെ ബാറ്ററി ബാക്കപ്പൊക്കെ വളരെ കുറവാണ് കാരണം ഒരു ടു അവേഴ്സ് ത്രീ അവേഴ്സ് ഒക്കെയാണ് കണ്ടിന്യുസ് യൂസെയ്താല് തന്നെ ചാർജ് നിക്കത്തുള്ളൂ അപ്പോൾ എയിറ്റ് അവെർസോന്നും നമുക്ക് കിട്ടുന്നില്ലായിരുന്നു പിന്നെ നോക്കുമ്പോൾ ഇതിൻ്റെ ബിൽഡ്ക്വാളിറ്റിയൊക്കെ ഭയങ്കര മോശാണ് ജസ്റ്റ് സൈടിന്നൊക്കെ ഒക്കെ എന്താ പറയുക താ തന്നെ ഒരു എന്താ പറയാ ക്രാക്ക് പോലെ വീഴുകയും പെട്ടന്നുതന്നെ അത് പൊട്ടിപ്പൊവൊക്കെ ചെയ്തു പിന്നെ ടെൻ മീറ്റെർസൊന്നും ബ്ലൂടൂത്തിനു ഡിസ്റ്റൻസ് ഒന്നും കിട്ടുന്നില്ല എന്താ പറയുക ഇത് ഒരു ടു ത്രീ മീറ്റെർസ് അപ്പറം എത്തുമ്പൊത്തേക്കും ഇതിൻ്റെ വോയിസൊക്കെ കട്ടാവുന്നുണ്ട് അപ്പോൾ അത്രക്ക് ബെറ്റർ ആയിട്ടുള്ള പ്രോഡക്റ്റായിട്ട് എനിക്കത് തോന്നിയിട്ടില്ല